സുഹൃത്തെ എനിക്ക് ട്രെയിൻ യാത്രകളുടെ ഓഫറൊക്കെ ഞാൻ നോക്കലുണ്ട് അപ്പോൾ അതിൽ കുറേ ഓഫറുകൾ നോക്കിയപ്പോൾ അതിൽ പലേ മിസ്ലീഡിങ്സുകളും കുറവുകളും എനിക്ക് കാണാൻ സാധിക്കുകയും ഞാൻ ഓഫീസരെ പോയി കാണാൻ ശ്രമിക്കാൻ ശ്രമിക്കും നീ കൂടെ വരണം എനിക്ക് മാർഗ്ഗനിർദ്ദേശം ആവശ്യമാണ് ഇല്ലാതെ എനിക്ക് കഴിയില്ല അപ്പോൾ ഭയങ്കരമായ ഓഫറുകളാണ് അവിടെ കാണുന്നത് എങ്കിലും അതിലേറെ പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട് ഓഫറിൻ്റെ സാധുത പറയാൻ സുഹൃത്തെ അത്രയും മോശമായ ഒരു സാധ്യതയാണ് അവിടെ കാണുന്നത് നീ എനിക്ക് സഹായം നിൻ്റെ സഹായം എനിക്ക് വേണം നമുക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓഫീസറോട് പോയി ചോദിക്കണം എനിക്കിതിനെക്കുറിച്ച് അറിയില്ല നിനക്കറിയുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു താ സുഹൃത്തെ ഈ സാഹചര്യം നീ നീ ഇല്ലാതെ എനിക്ക് നടക്കത്തില്ല ഈ ഓഫറ് എ എത്ര വരെയുള്ള ഇത് എന്നുള്ളത് പൂർണ്ണമായി അതിലൊന്നും കാണിക്കുന്നില്ലെങ്കിലും കുറച്ചൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പൂർണമായി ഇത് കാണിക്കുന്നില്ല എന്നാലും നീ ഒന്ന് വന്നിട്ട് അവിടെ എങ്ങനെയാണ് അത് റെഡിയാവുന്നത് അതൊന്ന് റെഡിയാക്കി തരണം നമുക്കിപ്പം പോയിട്ട് ഓഫീസർനോട് എന്താണ് ഈ ഇത് കൃത്യമായി കാണിക്കാത്തത് എന്ന് ചോദിക്കാം അത് ഇനിയുള്ള ഓഫറുകൾ നമുക്ക് ചോദിച്ചന്വേഷിക്കണം അടുത്ത പ്രാവശ്യത്തിനുള്ള അടുത്ത പ്രാവശ്യത്തിന് വേണ്ടിയുള്ള വേണ്ടി നമുക്ക് തുടരാം ഓക്കെ താങ്ക് യൂ